ഹലോ കെ എസ് ഇ ബി ഞാൻ ഒരു ചെറുകിട ബിസിനസ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വൈദ്യുതി ഉപയോഗം ട്രാക്ക് ചെയ്തുകൊണ്ട് എൻ്റെ പ്രതിമാസ ചിലവുകൾ കൃത്യമായി കണക്കാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ അടിസ്ഥാനമായ വൈദ്യുതി ഉപയോഗവും അതനുസരിച്ചുകൊണ്ട് എൻ്റെ ഭാവി ചിലവുകൾ കണക്കാക്കാൻ വേണ്ടിയും ഒരു മീറ്റർ റീഡിങ്ങിന് വേണ്ടി അഭ്യർത്ഥിക്കാനാണ് ഞാൻ പ്രധാനമായും വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതൊരു ചെറുകിട ബിസിനസ്സാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വൈദ്യുതിയുടെ ഉപയോഗം അത്യാവശ്യമായതിനാൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് സമീപിക്കുന്നത് എൻ്റെ ഈ ഒരു ഉപയോഗത്തെ ഏറ്റവും നല്ല രീതിയിൽ ട്രാക്ക് ചെയ്തുകൊണ്ട് എൻ്റെ പ്രതിമാസങ്ങളിൽ വരുന്ന ചിലവുകൾ കൃത്യമായി എനിക്ക് കണക്കാക്കാൻ വേണ്ടി ഒരു മീറ്റർ അത്യാവശ്യമാണ് എല്ലാ ബിസിനസ്സിലും ഉള്ളതുപോലെ ഈ ഒരു മീറ്ററിൻ്റെ ആവശ്യകത എൻ്റെ ഈ ഒരു ചെറുകിട ബിസിനസ്സിനും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വൈദ്യുതി ഉപയോഗവും അതനുസരിച്ച് എനിക്ക് ഇനി വരുന്ന എൻ്റെ ചിലവുകൾ കണക്കാക്കാനും ഒരു മീറ്റർ റീഡിങ്ങിന് വേണ്ടി ഞാൻ അഭ്യർഥിക്കുകയാണ് ഓക്കെ താങ്ക് യൂ